ഞാന് ഓൺലൈനിൽ നിന്നു വാങ്ങിച്ചൊരു പ്രോഡക്റ്റായിരുന്നു ഹാൻഡ് ബാഗ് അപ്പോൾ ശരിക്കും നല്ലൊരു ഉൽപ്പന്നം തന്നെയായിരുന്നു ആ ഒരു വിലയ്ക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഹാൻഡ് ബാഗായിരുന്നു ഒരു ബ്ലൂ കളറുള്ള ഹാൻഡ് ബാഗാണ് വാങ്ങിയത് അറകൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഉള്ളിൽ ഒരു ഒരു സിബ്ബാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എനിക്കിപ്പോൾ ഫോണും മറ്റ് പൈസയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ട്രിപ്പ് നമുക്ക് പോകാൻ പറ്റിയൊരു ഹാൻഡ് ബാഗായിരുന്നു നല്ല അഫൊർഡബിൾ രീതിലുള്ളതായിരുന്നു നല്ല കംഫേർട്ടാണ് മെറ്റിരിയലായിക്കോട്ടേ നല്ല രസമുണ്ട് അങ്ങനെ എന്താ പറയുക നമുക്ക് മോശമെന്നു പറയാനൊന്നുമില്ല അപ്പോൾ നല്ല രീതിയിലുള്ളൊരു പ്രോഡക്റ്റായിരുന്നു